ആ ഹലോ എന്തായിരുന്നു കാര്യം എന്ത് ബുക്കാണ് വേണ്ടത് ആടുജീവിതം അല്ലേ ബെന്യാമിൻ്റെ പുസ്തകം അല്ലേ ഞാനൊന്ന് നോക്കട്ടെ അവിടെ ഇരിപ്പുണ്ടോ നമുക്ക് ഇത് കുറച്ച് കോപ്പി തന്നിരുന്നു പക്ഷേ അത് എല്ലാം പോയെന്ന് തോന്നുന്നു നോക്കട്ടെ ആടുജീവിതമേ കോപ്പിയൊന്നും ഇപ്പോൾ ഇരിപ്പില്ല നമുക്ക് മൊത്തം മൂന്ന് കോപ്പിയുണ്ടായിരുന്ന് പക്ഷേ അത് മൂന്നും ഓരോ പിള്ളേര് വന്നിട്ട് എടുത്തോണ്ട് പോയല്ലോ

ആ ആ അവര് കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ച പിടിക്കും നമുക്ക് പതിനാല് ദിവസത്തേക്കാണ് അവർക്ക് ബുക്ക് നമ്മള് കൊടുക്കുന്നത് അപ്പോൾ അവര് രണ്ട് ആഴ്ച എടുക്കും അത്യാവശ്യവായിരുന്നോ പുസ്തകം വല്ല അസൈൻമെൻറ്റിന് വല്ല

ആ സ്റ്റുഡൻറ്റ്സ് തന്നെയാണേ കൊണ്ടുപോയിരിക്കുന്നത്

നമുക്ക് രണ്ടാഴ്ച പിടിക്കുവേ രണ്ടാഴ്ച കഴിയുമ്പത്തേക്കും വന്നാൽ ഇപ്പം ഇന്നിപ്പം ശനിയായ്ച്ചല്ലേ അപ്പം ആ അടുത്ത ശനിയാഴ്ച കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ എന്തായാലും ബുക്ക് ആ ഉണ്ടാകും ആ കിട്ടും ആ ഇല്ലില്ല ഞാനെടുത്ത് വെക്കാം അപ്പോൾ ശനിയാഴ്ച തന്നെ വരണം കേട്ടോ അപ്പം അതിന് മുന്നേയായിട്ട് നമുക്ക് വേറാരേലും വന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒത്തിരി ദിവസം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരിതില്ല

ഓക്കെ ഓക്കെ ഓക്കെ മെമ്പർഷിപ് ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ആ ശരി ശരി ആ അപ്പം നമുക്ക് അറിയാവല്ലോ രണ്ടാഴ്ച വായിക്കാൻ നമ്മളൊരാൾക്കൊര് പുസ്തകം കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതി കൂടുതല് വേണ്ടി വരുവോ ദിവസങ്ങള് ഒരാഴ്ച മതി

ആ ഓക്കെ ആ അപ്പോൾ എക്സ്ട്രാ ദി ദിവസം എടുക്കും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നൂടെ ഒന്ന് വന്ന് റി റിന്യൂ ചെയ്യണം അതുകൊണ്ട് ഞാന് ചോദിച്ചതാണ് കേട്ടോ

ആ ആ വിളിച്ച് പറഞ്ഞാൽ മതി മതി മതി മതി മതി ആ ഹാ ഹാ ഓക്കെ വേറേതേലും പുസ്തകം വേണോ ഇത് മാത്രം മതിയോ ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും നമുക്കുണ്ട് കേട്ടോ നമുക്ക് ബാല്യകാലസഖിയുണ്ട് പാത്തുമ്മായുടെ ആടുണ്ട് ഭൂമിയുടെ അവകാശികളുണ്ട് എല്ലാം ഉണ്ട്

ആ ഒന്നിച്ച്

ആ ബഷീറിൻ്റെ ഏതാ ബാല്യകാലസഖി മതിയോ ഓക്കെ ഓക്കെ അപ്പം അത് രണ്ടും കൂടെ ശനിയാഴ്ച്ചത്തേക്കെടുത്ത് വെച്ചേക്കാം ഓ ആ ഓക്കെ ഓക്കെ ആ ശരി എന്നാൽ